നമ്മുടെ രാജ്യത്തെ പ്രധാന വിനോദ വ്യവസായം എന്നു പറയുന്നത് ടൂറിസം ആണ് അതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ എന്നു പറയുന്നത് നമ്മുടെ കേരളവുമാണ് രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ വിനോദരൂപങ്ങളെന്നു പറയുന്നത് കായിക ഇനങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ കളിയായ ഹോക്കിയും ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം വിനോദ കായിക കളികളാണ് ആളുകൾ അത് വിനോദത്തിനായി ഈ കളികളിൽ ഏർപ്പെടുകയും അത് കാണുകയും ചെയ്യുന്നു പുരുഷന്മാർക്ക് കൂടുതലായും കാണാനിഷ്ടമുള്ള വിനോദ പരിപാടികൾ ക്രിക്കറ്റ് ഫുട്ബോള് തുടങ്ങിയ കായിക ഇനങ്ങളാണ് എന്നാൽ സ്ത്രീകൾക്ക് കൂടുതലായും ഡാൻസ് മ്യൂസിക് ഫിലിം തുടങ്ങിയവയുമാണ് ഡാൻസ് വ്യത്യസ്തമായ ഇനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ വരച്ചുകാട്ടുന്ന അവരുടെ സംസ്കാരത്തെ വരച്ചുകാട്ടുന്ന ഡാൻസുകൾ ഉണ്ട് ഈ നൃത്തരൂപങ്ങൾ സാധാരണയായി പരിശീലനത്തിലൂടെയാണ് സ്വായക്തമാക്കുന്നത് കേരളത്തിൽ വ്യത്യസ്തമായ നൃത്തയിനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് കലാമണ്ഡലം അത് തൃശ്ശൂരാണ് സ്ഥിതിചെയ്യുന്നത് അതുപോലെ തന്നെ മ്യൂസിക്കിനും കേരളീയർ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് പാടാൻ കഴിവുള്ള മികച്ച ആൾക്കാർ തന്നെ ഇന്ത്യയിലെ മികച്ച ആൾക്കാർ തന്നെയാണ് ഈ കൊച്ചുകേരളത്തിൽ താമസിക്കുന്നത് നാടകം സിനിമയെ വെച്ചു നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമില്ലെങ്കിലും നാടകത്തിനും ആസ്വാദകരുണ്ട് ഇപ്പോൾ അത് പല സ്റ്റേജുകളിലും അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൽ നാടകം ഒരു പ്രധാന വിനോദ പരിപാടി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം പോലും ഫിലിമിനാണ് കൂടുതൽ കുട്ടികൾക്കും താൽപര്യം കൂടാതെ തന്നെ മറ്റു സാങ്കേതിക വിദ്യകളോടുമാണ് കൂടുതൽ താൽപര്യം റേഡിയോ ഇപ്പോൾ അന്യം നിന്നുപോകുന്ന ഒരു ഉപകരണമായി മാറുന്നു ടെലിവിഷനാണ് കൂടുതലായി പ്രാധാന്യമുള്ളത് ടെലിവിഷനിൽ കാണുന്നതിനും കേൾക്കുന്നതിനും ചെയ്യുന്നതിലൂടെ ആസ്വാദനം വളരെ ഹൃദ്യമായിത്തീരാറുണ്ട് റേഡിയോയിൽ കേൾവി മാത്രമേ സാധ്യം ആകുന്നതിനാൽ ആസ്വാദ്യത അൽപം കുറവാണ് എങ്കിലും റേഡിയോയെ ടെലിവിഷനെ വിനോദ ഇനങ്ങളായി ഇന്ത്യയിലെ ആൾക്കാർ കാണുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വിനോദ വ്യവസായം എന്നു പറയുന്നത് ടൂറിസം തന്നെയാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ ആൾക്കാർക്ക് കൂടുതൽ ആസ്വാദ്യകരമാവുന്നു ആയതിനാൽ വിദേശികളായ വളരെയേറെ യാത്ര യാത്രികന്മാർ നമ്മുടെ ഈ ദേശത്ത് വരുന്നുണ്ട് അതിന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും കായിക ഇനങ്ങൾ വിനോദ ഇനമായി മാറുമ്പോൾ അതും കൂടുതൽ ആസ്വാദ്യത ഉള്ളതായിത്തീരുന്നു